ഇത് നമ്മുടെ പ്രദേശത്തെ കലാ കരകൗശല മേഖല നമ്മുടെ മറ്റ് സ്ഥാ സംസ്ഥാനത്തെ മറ്റ് മേഘാലെലോട്ട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാമെന്താ പറയാ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉയർന്ന് പൊക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഫാഷൻ ഡിസൈനിംഗ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിംഗ് സിനിമ പരസ്യം എന്നൊക്കെ പറയുന്നത് ഈ ഫാഷൻ ഡിസൈനിംഗ് പറഞ്ഞാ എന്താ പറയാ ഒരു നല്ല പ്രൊഫഷനാണ് ഇപ്പം നമ്മുടെ എന്താ പറയാ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ നല്ലോണം ഉയർന്ന് പൊക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷനാ ഒരു ഫീൽഡാണ് ഈ ഫാഷൻ ഡിസൈനിംഗ് എന്ന് പറയുന്നത് അതുപോലെ സിനിമയാണെങ്കിൽ തന്നെ എന്താ പറയാ എല്ലാ ഇതിൻ്റെ ഇപ്പം തന്നെ ആദ്യോം ഇന്നും ആവാസനൊക്കെ എന്താ പറയാ ഇപ്പോഴും നല്ല മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഒരു ഇതാണ് സിനിമ എന്ന് പറയുന്നത് പിന്നെ പരസ്യം നമ്മളിപ്പോൾ ഓരോ പ്രോഡക്റ്റ് നമ്മളെ കൊണ്ട് കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ടേലും ഒക്കെ അതിനൊക്കെ ഓരോ പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിയാൽ തന്നെ നമ്മക്കെന്താ അതിനൊക്കെ ഓരോ പരസ്യം കൊടുക്കണം അതിന് വേണ്ടീട്ട് ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഓപ്ഷനാണ് പരസ്യം എന്ന് പറയുന്നത് ഓരോ ആഡ് ചെയ്തതിലും നമ്മൾ ഇന്ന് ഓരോ പ്രോഡക്റ്റ് ഇറക്കുവാണെങ്കിൽ തന്നെ എന്താ എന്താ പറയാ നമുക്കതിനൊരു പരസ്യം വേണം ആൾക്കാർവാങ്ങാൻ വേണ്ടീട്ട് തന്നെ നമുക്ക് ഒരു പരസ്യം ക്രീയേറ്റ് ചെയ്യണം അതിന് വേണ്ടീട്ട് ഈ പരസ്യം നമ്മളിതാക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റ് സം നമ്മുടെ എന്താ പറയാ കലാ കരകൗശല എന്താ മറ്റ് സംസ്ഥാനങ്ങളെ നമ്മളിത് പോലെ തന്നെയാണ് സ്വാധീനിക്കുന്നത്